ആ ഹലോ പറഞ്ഞോളൂ

ഒരാഴ്ചത്തേക്കാണോ

റേറ്റ് നമുക്ക് ഒരു മൂന്നാർ വരെ അല്ലേ ആ മൂന്നാർ വരെ പോവണമെങ്കിൽ നമുക്ക് ഏകദേശം എല്ലായിടത്തും വേറെ എവിടെയെങ്കിലും പോവാനുണ്ടോ ആ സ്ഥലങ്ങൾ ഒക്കെ ഞങ്ങൾക്ക് അറിയാം അപ്പം അവിടെ ആ അവിടെ എല്ലാ സ്ഥലത്തും പോവണം അല്ലേ നമ്മൾ കറക്റ്റ് എങ്ങനെയാണ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏകദേശം ഒരു പതിനയ്യായിരം രൂപേൻ്റെ മുകളിൽ വരും ഒരു പതിനാറ് പതിനേഴ് രൂപേൻ്റെ അടുത്ത് വരും അത് നിങ്ങൾ തന്നെയാണോ ആ അത് ആ ഓക്കെ ഓക്കെ അങ്ങനെ ആണെങ്കിൽ ഒരു പതിനയ്യായിരം രൂപ ആ റേറ്റ് വരും

ആ അതൊക്കെ ഓക്കെ അതൊക്കെ ഞങ്ങൾ റെഡി ആക്കി തരാം ഞങ്ങൾ ഇവിടുന്ന് തന്നെയാണ് നമ്മള വണ്ടിയൊക്കെ വരുന്നത് പിന്നെ വലിയ കുഴപ്പം ഒന്നും ഇല്ല ഞാൻ തന്നെ ആയിരിക്കും ഡ്രൈവർ വേറെ വണ്ടിക്കാരൊന്നും ഇല്ല ആ റിസോർട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ചെയ്യാം ആ റിസോർട്ട് നല്ല അടിപൊളി നല്ല ആംബിയൻസ് ഉള്ള റിസോർട്ടുകൾ മൂന്നാർ ഇഷ്ടംപോലെ ഉണ്ട് അപ്പം അവിടെ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാം അത്യാവശ്യം

ആ ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ അവിടത്തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്

ആ ഓക്കെ ഓക്കെ ആ

ഓക്കെ ഓക്കെ ഇതൊക്കെ മൂന്നും നമ്മൾ എല്ലാം സെറ്റ് ആക്കിത്തരാം അത് കുഴപ്പം ഒന്നും ഇല്ല നല്ല ലക്ഷ്വറി ലൈഫിലുള്ള റി റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഓക്കെ ഫൈവ് സ്റ്റാർ തന്നെ സെറ്റ് ആക്കിത്തരാം നല്ല നല്ല അടിപൊളി ആയിട്ടുള്ള ഫുഡ് നോൺ വെജ് അല്ലേ ഫുഡ്

ഓക്കെ ഓക്കെ അത് റെഡി ആണ് എപ്പോഴാണ് വരേണ്ടത് ഞായറാഴ്ചയാണോ എത്ര മണിക്കാണ് എത്തേണ്ടത് ആ ഓക്കെ ഓക്കെ ഞാനൊരു എട്ടര ഒമ്പത് മണി ആവുമ്പോഴത്തേക്കും ഞാൻ നിങ്ങള സ്പോട്ടിലേക്ക് എത്തും ഒന്ന് ലൊക്കേഷൻ ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്ത് തന്നാൽ മതി ഓ ഓ ഓക്കെ